ജീവിതത്തിൽ വരക്കാനിഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വരകൾ ഞാൻ മത്സരത്തിനായി പങ്കു വെച്ചിട്ടുണ്ട് ഓരോ വേദി ഓരോ അനുഭവമാണ് കലയിലൂടെ പകർന്നു നൽകുന്നത് ഞാൻ വരച്ച ചിത്രം മത്സരത്തിനായി വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പല പല ആശകളാണ് അവരതെടുക്കുമോ അവരെന്തു വിചാരിക്കും അവർക്കത് മനസ്സിലാകുമോ ഞാനുദ്ദേശിച്ചത് തന്നെയാണോ അവർക്കു മനസ്സിലായിട്ടുണ്ടാകുക ഞാൻ വരച്ചതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർ പറഞ്ഞ കാര്യങ്ങളാണോ ഞാൻ വരച്ചിരിക്കുന്നത് ഇനി ഞാൻ അവർ പറഞ്ഞതല്ലേ ഞാൻ വരച്ചത് ഞാൻ വരച്ചതിലെന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെയുള്ള നൂറ് നൂറ് സംശയങ്ങൾ നൂറ് നൂറ് ചോദ്യങ്ങൾ എല്ലാം മനസ്സിൽ അടുക്കി വെച്ചു നമ്മൾ വരക്കുന്നു ഈ വര നമ്മൾ മന ജഡ്ജസിൻ്റെ കയ്യിലെത്തുന്നതു വരെ നമുക്ക് ആദിയാണ് നമ്മുടെ വരെ എന്താകും ഇനിയുള്ള നമുക്ക് വരക്കാനവസരം കിട്ടുമോ ഇനി ഇങ്ങനൊരു വേദി കിട്ടുമോ അങ്ങനെയുള്ള നൂറ് നൂറ് ചോദ്യങ്ങൾ എല്ലായിടത്തും നമുക്ക് നമ്മുടെ കഴിവു പ്രകടിപ്പിക്കാം എന്നത് മാത്രം കഴിവുകൾ പ്രകടിപ്പിക്കാം എന്നതു മാത്രത്തിലുപരി അതിനു അപ്പുറത്ത് കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും ഒരു വേദി കൂടിയാണ് ഈ കല എന്നത് ഓരോ വിദ്യാർത്ഥിയും തൻ്റെ കലകളിലൂടെ തന്നെയാണ് ഇതെല്ലാം ആർജ്ജിച്ചെടുക്കുന്നത് കലയെ സ്നേഹിക്കുന്നതു പോലെ തന്നെയാണ് ഈ ക വരകളും നമ്മൾ എപ്പോഴൊക്കെയോ വരക്കുമ്പോൾ നമ്മുടെ മനസ്സിനു നമ്മൾ അറിയാതെ രൂപം കൊടുക്കുകയാണ് മനസ്സ് സമാധാനത്തിൻ്റെ വളർത്താൻ നാം ശ്രമിക്കുന്നു